വയനാട്ടിലെ തിരുനെല്ലി എന്നൊരു പ്രദേശത്ത് ഇന്നും നെയ്ത്ത് തുന്നൽ രീതികളെക്കുറിച്ച് പഠിപ്പിക്കുകയും അവരത് ചെയ്യുകയ്യും ഒക്കെ ചെയ്യുന്നുണ്ട് തുണികൾ നെയ്തെടുക്കുന്നുണ്ട് പിന്നെ മാറ്റുകൾ ചവിട്ടി അതെല്ലാം ചെയ്തെടുക്കുന്നുണ്ട് കൂടുതലും വനിതകളാണ് ചെയ്യുന്നത് ഞാൻ അവിടെ ഒരു പ്രാവശ്യം പോവുകയുണ്ടായി അതൊക്കെ കണ്ടു എനിക്ക് വളരെയധികം ഇഷ്ടമായി അവരോരോന്നു ചെയ്യുന്നതും വളരേ വളരെ വൃത്തിയോടു കൂടിയും വളരെ ശ്രദ്ധയോടു കൂടിയും ആണ് നല്ല അനുഭവം ആയിരുന്നു ഞാനതിൽ പങ്കു ചേരാൻ ശ്രമിച്ചു കുറച്ചൊക്കെ അവർ പറഞ്ഞു തരികയും അതുപോലെ ചെയ്യാനൊക്കെ ചെയ്യുക ഒക്കെ ചെയ്തു പിന്നീട് അവരത് വളരെയധികം കഷ്ടപ്പെട്ടു തന്നെയാണന്നേ തുണിയൊക്കെ നെയ്തെടുക്കുന്നത് നല്ലൊരു വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ അതിനനുസരിച്ചുള്ളൊരു തുക അവർക്ക് ലഭിക്കുന്നുണ്ടോയെന്ന് എനിക്ക് സംശയമാണ്